ഇപ്പോൾ സ്പോർട്സ് താരങ്ങള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാര് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അതായത് ഇപ്പോൾ പി ടി ഉഷ പി ടി ഉഷയൊക്കെ നല്ല രീതിയിലുള്ള അവര് ഓടിയിട്ട് ഒളിമ്പിക്സിൽ ഒക്കെ നല്ല രീതിയിലുള്ള മെഡല് കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെ പല രീതിയില് നേടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലേ ഒരു ലേഡിയാണ് ആ അവരിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്പോർട്സിൻ്റെ തന്നെ വലിയൊരു ഇതാണ് അതായത് വലിയ ബഹുമതിയൊക്കെ നേടി ഇപ്പോൾ അവർ ഒരു ഇതിൽ ഇരിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയില് എന്താ പറയുക നമ്മുടെ കേരളത്തില് പ്ര പ്രതിനിധീകരിച്ച് ഒരു ലേഡി ഇന്ത്യയിൽ തന്നെ ഒന്നാമത് ആയിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിബോളിൽ ഒരു പുള്ളിയുണ്ട് പിന്നെ നമ്മുടെ ഫുട്ബോളില് ഐ എൻ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങാതി ഉണ്ട് പുള്ളി പുള്ളിയൊക്കെ നല്ല രീതിയില് കളിച്ചു വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കാരണം അങ്ങേര് അങ്ങേര് ഫുട്ബോള് അതായത് സ്പോർട്സ് വഴിയാണ് ഈ പോലീസിൽ ഒക്കെ കിട്ടിയത് സ്പോർട്സ് വഴി ആണ് ഓരോ കാര്യങ്ങളും ബഹുമതിയും കാര്യങ്ങളൊക്കെ നേടിയത് ഇപ്പം ഇന്ത്യൻ ഇന്ത്യൻ ടീമിൽ തന്നെ ഐ എം വിജയനെ വെല്ലാൻ വേറെ ടീമ് ആൾ ആളുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഐ എം വിജയൻ ഒക്കെ ആയിരുന്നു ഇന്ത്യൻ ടീമിൽ ഒക്കെ ഉണ്ടായിരുന്നത്